കണ്ണൂർ പ്രദേശത്തുള്ള ആളുകൾ പോകാറുള്ള ഇടങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത് മുത്തപ്പനെയായിരിക്കും പരശ്ശിനിക്കടവ് മുത്തപ്പൻ എല്ലാവരും പരശ്ശിനിക്കടവ് വരാനായിരിക്കും ആദ്യം ആഗ്രഹിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ആദ്യം തോന്നുന്നത് കാരണം അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ പരശ്ശിനിക്കടവ് ഭാഗത്ത് തന്നെ നമ്മ നമുക്ക് പറ്റിയ മറ്റൊരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങളെന്ന് വേണെ പറയാം അതായത് ഒന്ന് പരശ്ശിനിക്കടവ് സ്നേയ്ക് പാർക്ക് പിന്നെ വിസ്മയ പാർക്ക് അതുപോലെ തന്നെ പരശ്ശിനിക്കടവ് ബോട്ടിംഗ് ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരശ്ശിനിക്കടവ് പോകുമ്പോൾ തന്നെ പോകുന്ന വഴിക്ക് തന്നെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായഭേദമെന്യേ ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളാണ് അതൊക്കെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടേ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടേ കണ്ണൂർ മുതൽ കണ്ണൂരിൽ നിന്ന് പോകുമ്പോൾ തലശ്ശേരി ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ മുഴുപ്പിലങ്ങാടി ബീച്ച് മുഴുപ്പില്ലങ്ങാടി ബീച്ചെന്ന് വെച്ചിട്ടുണ്ടേ അത് ഒരു ഡ്രൈവിംഗ് ബീച്ചായിട്ടാണ് എനിക്ക് അറിയാവുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫ്ലോട്ടിങ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട് അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്വദിക്കാൻ ആണെങ്കിലും എല്ലാറ്റിനും എല്ലാറ്റിനും നല്ലൊരു എന്താ പറയുക പോകാൻ എല്ലാവർക്കും താത്പര്യവും ഇഷ്ടവും ഉള്ള സ്ഥലങ്ങളാണ് പിന്നെ മുഴുപ്പിലങ്ങാടി ബീച്ചിൽ പോയിട്ടുണ്ടെ സ്വാഭാവികമായിട്ടും ഡ്രൈവിംഗ് അറിയാത്തവർക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ഒക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ അതൊക്കെയാണ് എനിക്കിപ്പോൾ മനസ്സിൽ വരുന്നത് അതൊക്കെയാണ്